മലയാളഭാഷ എന്നുള്ളത് നമ്മുടെ മാതൃഭാഷയാണ് സംസ്കൃതം ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകൾ ആംഗലേയ ഭാഷയായിട്ടാണ് നിലകൊള്ളുന്നത് ഈ ഭാഷകൾ സംസ്കൃതം ഇംഗ്ലീഷ് അറബി തുടങ്ങിയ ഭാഷകൾ നമ്മുടെ മലയാളഭാഷയെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് മലയാളഭാഷയുടെ ആ ഒരു നിലനിൽപ്പിനെ തന്നെ ഇത് ബാധിച്ചിട്ടുള്ളത് ആണ് ഇപ്പം പുറം രാജ്യങ്ങളിൽ പോയാലാണെങ്കിലും മലയാള ഭാഷയിൽ കൂടുതൽ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നതാണ് നമുക്ക് കൂടുതലും കാണാൻ കഴിയുന്നത് അതുപോലെ വിദ്യാഭ്യാസം ആണെങ്കിലും ഇംഗ്ലീഷ് ഭാഷയിൽ ആണ് കൂടുതൽ ഇപ്പോൾ നിലനിൽക്കുന്നത് അത് മലയാളഭാഷയെ നല്ല രീതിയിൽ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ഭാഷയുടെ നല്ല നിലനിൽപ്പിനെയാണ് ഇത് സ്വാധീനിച്ചിരിക്കുന്നത് സംസ്കൃതം എന്നത് നമ്മുടെ മലയാളഭാഷയിൽ വരുന്ന ഒന്നാണ് ഇംഗ്ലീഷ് ആംഗലേയ ഭാഷയായിട്ടാണ് നിലകൊള്ളുന്നത്